എനിക്ക് പൂന്തോട്ടമുണ്ടാക്കുന്നത് ഒരു പ്രചോദനമായിട്ട് തോന്നിയത് ഞാനതുണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആൻറ്റിയുടെ പൂന്തോട്ടം കണ്ടിട്ടാണ് അവിടെയാണെങ്കിൽ കു ഒരുപാട് പൂക്കളും അപ്പം തന്നെ പൂ പൂക്കളുണ്ടാകുമ്പം തന്നെ പൂമ്പാറ്റകളും ചെറിയ ചെറിയ പക്ഷികളൊക്കെയുണ്ടാകും അപ്പോൾ ആൻറ്റി അതുപോലെ തന്നെ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലവർക്ക് ഒരു ടൈം പാസ്സ് തന്നെയാണീ പൂന്തോട്ടം പരിപാലനം പറയുന്നത് അപ്പം അത് എനിക്ക് കണ്ടപ്പം എനിക്കും അങ്ങ എൻ്റെ വീട്ടിലും അങ്ങനെയൊന്ന് ആക്കണമെന്ന് തോന്നി അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊരു പൂന്തോട്ടം ആക്കി തുടങ്ങിയത് പക്ഷേ അതെനിക്ക് ഞാൻ ഉണ്ടാക്കിയൊരു പൂവ് ഒരു ചെടി അത് വളർന്നതൊരു പൂവ് പൂ കായ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം തോന്നി പിന്നെ പിന്നെ അതിൻറ്റൊരു ഹോബി ആയി മാറുകയായിരുന്നു പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറേ ചെടികളും പിന്നെ കുറേ പൂക്കളും പൂക്കളെന്ന് വെച്ചാൽ റോസാപ്പൂവ് അതുപോലെ സീനിയ അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മനസ്സിനു തന്നെ ഒരു സന്തോഷമായിട്ട് തോന്നി പിന്നെയെല്ലാവരും എൻ്റെ വീട്ടിൽ വരുന്ന അഥിതികളൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയത് വീടും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ പറയുന്നത് കേൾക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി പിന്നത് എനിക്കൊരു ടൈം പാസ്സായിട്ട് തോന്നിയതു കൊണ്ട് ഞാനൊരു എൻറ്റൊരു ഹോബി ആയിട്ട് മാറിയത്